ഹലോ ഞാൻ മരിയൻ കോളേജിലെ കുട്ടികളുടെ ലൈബ്രെറിയനാണേ ആ അപ്പോൾ ബുക്കിതുവരെ വെച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ ഏതോ ഒരു ബുക്ക് ഇവിടെ ഇതിൻറ്റകത്ത് പെൻഡിങ്ങെന്ന് പറഞ്ഞ് കുറേ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇനി ബുക്ക് വെച്ചില്ല അപ്പോൾ അതിന് ഫൈനുണ്ടായിരുന്നു മ്മ് ബുക്ക് ഇന്ന് കൊണ്ട് ഇപ്പോൾ ഫൈന് ആയെന്നേ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞായിരുന്നെ അപ്പോൾ രണ്ടുദിവസം ആയി ഇപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാ ആ അപ്പോൾ അമ്പത്തൊമ്പത് രൂപയാണ് ഫൈൻ വരുന്നത് ആ അപ്പോൾ ഇന്ന് കൊണ്ട് വെച്ചില്ലെങ്കിൽ ഒരു പത്ത് രൂപ വെച്ച് കൂടും മ്മ് ആ എവിടെ ആയിരുന്നു ഇപ്പം ഉള്ളത് എറണാകുളത്തോ ഓ ഈ ഞാൻ നോക്കട്ടെ ഞാനെ ഇപ്പം ഇതെല്ലാം ഇപ്പം ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാ ഇപ്പം പത്ത് രൂപ വെച്ച് കൂടും കേട്ടോ രണ്ടുദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളോ ഇവിടുത്തെ സ്റ്റാഫിനോടൊന്ന് ചോദിച്ച് ചോദിച്ച് നോക്കണോ എന്ന് ആലോചിക്കുകയാ ഇപ്പം ഇവിടെ എല്ലാവരും ഇപ്പം അന്നന്ന് ഇപ്പം വിളിച്ച് പറഞ്ഞാൽ അന്നന്ന് അവരാ അവരങ്ങ് കൊണ്ട് വെക്കുവാ ചെയ്യുന്നത് കൊണ്ടുവെച്ചിട്ട് അവർ ഫൈനും അടച്ചിട്ടങ്ങ് പോയി ഇന്നുതന്നെയൊരു ഒരു ഏഴ്പേരെങ്ങാനും കൊണ്ട് വെച്ചു ഇനിയും കിടക്കുന്നു ഒരു നാലഞ്ച് പേരെയും കൂടെ വിളിക്കാൻ അപ്പോൾ അവരെയുംകൂടെ വിളിച്ചിട്ട് എല്ലാം ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ നിങ്ങൾ ഇവിടെയിരുന്ന ബുക്ക് ആ ബുക്ക് കൊണ്ട് വെച്ചാലേ ഏതായിരുന്നു ബുക്ക് എടുത്തത് ആ ഓക്കെ ഓക്കെ അത് എത്രയും പെട്ടെന്ന് കൊണ്ട് വെച്ചായിരുന്നെങ്കിലെ ഇവിടുത്തെ എല്ലാ എൻട്രീസൊന്ന് ശരിയാക്കാമായിരുന്നെ ആ ആ അപ്പം അതേത് ബുക്കായിരുന്നു വേണ്ടത് ആണോ ഓക്കെ ഓക്കെ അപ്പം അത് അത് ഞാനെടുത്തു വെച്ചേക്കാം അപ്പം മറ്റേ ബുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ നോക്കണേ അപ്പം വേറെയാരുടെയിലായാലും കൊടുത്ത് വിട്ടാലും മതി ഇപ്പം ആ ഫൈനടച്ചാൽ കുഴപ്പം ഇല്ല ഫൈനിപ്പോൾ കൂടുമെന്നേ ഉള്ളൂ അതൊരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ വെച്ച് കൂടും ആ അതുകൊണ്ടാ പറഞ്ഞത് ഇപ്പം എത്രയും പെട്ടെന്ന് കൊണ്ട് അടക്കുവാണെങ്കിൽ ഇപ്പം നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് നൂറ് രൂപ എക്സ്ഡി ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇരുനൂറ് രൂപ ആകും പിന്നെ നമ്മളിന്ന് നൂറ് രൂപ കഴിഞ്ഞിട്ട് ഇപ്പം ഫുള്ള് എന്തുവാ പറയുന്നത് ഫൈൻ വരും അപ്പോൾ നൂറുരൂപ നൂറുരൂപ വെച്ച് കൂടും ഇപ്പോൾ പത്ത് രൂപ വെച്ചാണ് കൂടുന്നത് അപ്പോൾ അടുത്തത് നൂറ് രൂപ എക്സീഡായി കഴിഞ്ഞാൽ പിന്നെ നൂറുരൂപ വെച്ച് കൂടും അപ്പോൾ ഇരുന്നൂറാകും

ആ രണ്ടുദിവസം അത് അത് മതിയായിരിക്കും എത്രയും പെട്ടെന്ന് കൊണ്ടുവെക്കാൻ നോക്കുക കേട്ടോ മ്മ് ശരി എന്നാൽ ഏതാ പുതിയ ബുക്സ് ഇപ്പം ഏതാണ്ട് സ്റ്റോക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നെ രണ്ടുദിവസം മുമ്പേ ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാം അടുക്കിവെച്ചുകൊണ്ടിരിക്കുകയാ ഏതോ എന്തോ ആ പുതിയതായിട്ടുള്ള മാഗസിൻസ് എല്ലാ ബുക്ക്സും ഉണ്ടായിരുന്നെ നമ്മളീ പഠിക്കുന്ന ബുക്ക്സും ബി ബി എ ഡിഗ്രീടെ എല്ലാ ബുക്ക്സുമൊക്കെയുണ്ടായിരുന്നു ഏത് ഏത് പോഷനാണ് പഠിക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ബുക്ക് ഓക്കെ ഓക്കെ പറഞ്ഞോ ആ ഓക്കെ യോക്കെ ഞാൻ ആ ഓക്കെ യോക്കെ ഞാനെന്നാൽ എല്ലാമൊന്ന് ബുക്കൊന്നെടുത്ത് വെച്ചിട്ട് ഞാൻ പറയാം മറ്റേ ബുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കിക്കേ ഫൈന്നുണ്ടാവും കേട്ടോ ഒരു അമ്പത്തൊമ്പത് രൂപ ഇപ്പോൾ ഫൈനിരിക്കുന്നത് നാളെ മറ്റന്നാളാവുമ്പോഴാത്തേക്ക് ഇപ്പം നൂറുരൂപ എക്സ്ട്രാ ആയിക്കഴിഞ്ഞാൽ ഇര്ന്നൂറ് രൂപയാകും കേട്ടോ എത്രയും പെട്ടെന്ന് കൊണ്ടുവെക്കാൻ നോക്കുക കേട്ടോ ശരി എന്നാൽ ഓക്കെ ഓ